ഞാൻ പോയൊരു ക്ലൈമ്പിങ് ലൊക്കേഷൻന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പല കോട്ടയാണ് അവിടെ നിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് നമ്മൾ പോകേണ്ടത് അവിടെ രാവിലെ പോയാലേ നമുക്ക് വ്യൂ കാണാൻ പറ്റുള്ളൂ അത് കുറെ മലയൊക്കെ കയറി കയറി കയറി പോകണം ഭയങ്കര അതായത് നമ്മൾ അതിൻറ്റെ ടോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ നമുക്ക് അത് പടിഞ്ഞാറേത്തുറ എന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മൾ രാവിലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എൻറ്റെ വീട് ഇവിടെ തോണിച്ചാലാണ് അപ്പം അവിടെ എത്തുമ്പോൾ ഒരു എങ്ങനെ പോയാലും ഒരു അര മുക്കാ മണിക്കൂർ ആകും അപ്പം അഞ്ച് മുക്കാൽ ആറുമണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വന്ന് വരൂലോ ആ ഒരു സമയമാണ് നമ്മൾ ആ മലേൻറ്റെ മുകളിൽ എത്തേണ്ടത് അപ്പം ആ മലേൻറ്റെ എഡ്ജീന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ളും അതായത് നമ്മളെ ഇങ്ങനെ ആകാശം ഇങ്ങനെ കാണില്ലേ നമ്മളിപ്പം താഴെ നിന്നിട്ട് മേലോട്ട് നോക്കുമ്പോൾ ആകാശം കാണില്ലേ അതുപോലെ ഇങ്ങനെ മഞ്ഞുപോലെ മൂടി കിടക്കുന്ന ഒരു ഇതാണ് നമുക്കവിടെന്ന് അവിടെ കാണാൻ സാധിക്കുക അപ്പം ഞാൻ കണ്ടത് അതാണ് എനിക്കേറ്റോം ഇഷ്ടപെട്ടതും പിന്നെ ആ ഒരു ക്ലൈമ്പിങ് ആണ്